നമ്മൾ കമ്പാ പ്രാദേശികമായ കമ്പോളത്തിൽ കൃഷി ഉൽപ്പന്നങ്ങൾ എത്തിക്കുമ്പോൾ കൃഷി ഉൽപ്പന്നങ്ങൾക്കുള്ള പൈസ അപ്പോൾ കിട്ടൂല അത് വിറ്റ് ചിലവായി പോയിട്ട് അതിൻ്റെ പൈസേം കാര്യമൊക്കെ നമുക്ക് കിട്ടൂള്ളൂ എ അങ്ങനെ വരുമ്പോൾ ചില പച്ചക്കറി സാധനങ്ങൾ ഒറ്റ ദിവസം കൊണ്ടൊക്കെ വിറ്റു പോകേണ്ട സാധനങ്ങൾ രണ്ട് മൂന്ന് ദിവസം നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചീഞ്ഞു പോകും മറ്റേ വാടി ഒരു വില കിട്ടാത്ത രീതിയിൽ ആയിപ്പോകും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പത് ആ ഉൽപ്പന്നത്തിന് വില കുറയും അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ആ പൈസ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ആ മാർക്കറ്റിങ് ആ കമ്പോളത്തിലുള്ള ആൾക്ക് അത് പെ പെട്ടന്ന് വിറ്റ് പോകാനുള്ള ഒരു സംഗതി നോക്കും പൈസ അവരെ കൈയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതാണല്ലോ അത് അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഈടാക്കണം എന്നുള്ളൊരു ചിന്താഗതി ആ മാർക്കറ്റിങ് ആൾക്കാർക്ക് ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ പൈസ ഇങ്ങനെ തരാതെ നമ്മളുടെ സാധനം വിറ്റ് എന്ന ചിലവായി പോണെന്ന് വെച്ചാൽ അന്ന് പോയാൽ മതി പൈസ വല്ലോം അയാൾ വില പറഞ്ഞ് ഉറപ്പിച്ചാൽ കുറച്ച് ആൾക്കാർ അവരൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആ മ പ പ്രതീക്ഷിച്ച പൈസ ഒന്നും അങ്ങനെ കിട്ടൂല ഇപ്പോൾ ഒരു കിലോയ്ക്ക് ഇപ്പോൾ ഒരു അ അൻ അൻപത് രൂപാന്നൊക്കെ പറഞ്ഞാൽ കിട്ട് കിട്ടിയിരുന്ന സാധനങ്ങൾ അത് കൈ കഴിഞ്ഞു അത് ചിലപ്പോൾ ഇരുപത് രൂപ പത്ത് രൂപന്നുള്ള നിലയിലെക്ക് അങ്ങട് വരും അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ പ്രശ്നം